ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും എന്താ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ്ണ്ട് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കുമുണ്ട് അപ്പോൾ നമുക്കത് വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗപെട്ടിട്ടുണ്ട് അച്ഛന് ഒരു കണ്ണിനോര് തിമിരം വന്ന് ഹോസ്പിറ്റലിൽ ആയ സമയത്തൊക്കെ അച്ഛന് അതിന് മുപ്പത് മുപ്പതിനായിരം രൂപ സർജറിക്ക് ആവശ്യുള്ളോടത്ത് പതിനയ്യായിരം രൂപേ നമുക്ക് അടക്കേണ്ടി വന്നുള്ളൂ ബാക്കി പൈസ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് വെച്ചിട്ടന്നെയാണ് കുറഞ്ഞ് കിട്ടിയത് അത് പോലെ മോന് ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ട് കാലിന് എല്ല് പൊട്ട്ണ്ടായി അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡുള്ളത് കൊണ്ട് നമുക്കൊരു വലിയ സർജറി ആയിരുന്നു അവന് കഴിഞ്ഞത് അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു സംഖ്യ ഇൻഷുറൻസിൻ്റെ കാർഡ്ന്ന് കിട്ടേം അതിൻ്റെ ബ ബാക്കിയുള്ള സംഖ്യ നമ്മൾ അടക്കേം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അപ്പം ആരോഗ്യ ഇൻഷുറൻസ് എല്ലാരുടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ലൊരു ഇതെന്നെയാണ് കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ട് ബില്ല് കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നല്ല ബില്ലാണ് വരുക അപ്പോൾ ആ ബില്ലൊക്കെ ഉള്ള സമയത്ത് കയ്യിൽ കിട്ടണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുംന്നുള്ളൊരു ഒരിതിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡുണ്ടാകുമ്പോൾ നമുക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയാണ് അങ്ങനെ ഞങ്ങൾക്കിതിവിടെ എല്ലാരിക്കും വീട്ടിൽ ഓരോരുത്തർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കത് നന്നായിട്ട് ഉപയോഗപെട്ടിട്ടുള്ളൊരു സംഭവമാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് അപ്പോൾ ഇട് ആരെങ്കിലും എടുക്കാത്തവരോക്ക ഉണ്ടെങ്കിൽ ആ കാർഡ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളും ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ൻ്റെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് മറ്റ് എല്ലാ ഹോസ്പിറ്റൽലൊന്നും ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് എല്ലാട്ത്തൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാ ഹോസ്പിറ്റല്കളിലും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉപയോഗമാവുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നീട്ടുള്ളത്